കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വിളയെന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ കൃഷീന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇന്ന് ഒരാളുടെ വീടെടുത്താൽ പോലും അവിടെ അവിടെയൊരു തെങ്ങെങ്കിലും ഉണ്ടാവും അത്കൊണ്ട് തന്നെ തേങ്ങയാണ് പ്രധാനമായിട്ടുള്ള ഒരു സംഭവമെന്ന് പറയുന്നത് കേരങ്ങളുടെ നാടാണല്ലോ കേരളം അത്പോലെ തന്നെ കണ്ണൂർ ജില്ലയിലും പ്രധാന പ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങാന്ന് പറയുന്നത് തേങ്ങക്കുപരി നമ്മൾ ഈ ഗോതമ്പ് അരി ഇതൊക്കെ നമ്മൾ വിളവെടുപ്പ് നടത്തുന്നുണ്ട് പിന്നെ പച്ചക്കറികളാണെങ്കിൽ തക്കാളി ചീര പയർ ഇതൊക്കെയുണ്ട് തക്കാളി ചീര പയറൊക്കെ എന്താണ് ദിനം നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പിന്നെ പഴങ്ങളെന്നു പറയുമ്പോൾ പൂവൻപഴം പിന്നെ നേന്ത്രപ്പഴം റോബസ്റ്റ പഴം പിന്നെ കദളിപ്പഴം ഇങ്ങനെ പല രീതിയിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ട് പിന്നെ പറയാനാണെങ്കിൽ എന്താ പറയാ കുരുമുളക് കുരുമുളക് അണ്ടിപ്പരിപ്പ് പിന്നെ അടക്ക റബ്ബർ ഇതൊക്കെ എന്താണ് കണ്ണൂർ ജില്ലയിൽ കൃഷി ചെയ്യുന്നയാണ് പക്ഷെ ഓരോ സമയത്തിലും മാത്രം ഓരോ കാലാവസ്ഥയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് മെയ് ജൂൺ ജനുവരി മാർച്ച് അങ്ങനെ ഒരു ചെറിയ ചെറിയ കാലവ കാലയളവില് എല്ലാമാണ് ഈ പറയുന്ന കുരുമുളകെല്ലാം ഉണ്ടാവുന്നത് നമ്മളുടെ പുകയിലയും നമ്മൾ കണ്ണൂർ ജില്ലയിൽ വളർത്തുന്നുണ്ട് അതു ഓരോ സാഹചര്യത്തിലും ഓരോ കാലാവസ്ഥയിലാണ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന നമ്മൾടെ തേങ്ങ തേങ്ങാന്ന് പറയുന്നത് എല്ലാ സമയം എല്ലാ കാലത്തും ഉണ്ടാകുന്നയാണ് അതിനെ പ്രത്യേകമായിട്ടുള്ളൊരു കാലാവസ്ഥയോ അല്ലെ ഒരു മാസമോ അങ്ങനൊന്നുമില്ല എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന ഒരു എന്താ പറയാ സാധനമാണ് ഈ തേങ്ങയെന്ന് പറയുന്നത് പിന്നെ അത് വിളവെടുപ്പ് നടത്തുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് വീട്ടിൽ അത് ഒന്നും ഉണ്ടാക്കാനുള്ള ഈ പ പറയുന്ന പച്ചക്കറികളൊന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ചിലവർ എന്താണ് അത് പുറത്തു നിന്ന് വിൽക്കുന്നവരടുത്തുന്നു പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അത് സ്ഥല പരിമിതി ചിലർക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് അങ്ങനെ അങ്ങനെ ഉള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാവാറുണ്ട് ഈ പറയുന്ന മത്തങ്ങ നമ്മൾ ഈ മത്തങ്ങയുടെ എന്താ പറയാ കുരു എറിഞ്ഞ് കഴിഞ്ഞാല് അത് മുള പൊട്ടീട്ട് ഉണ്ടാവാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ഈ എന്താ മാതള നാരങ്ങ മാതള നാരങ്ങയൊക്കെ എൻ്റെ വീട്ടിൽ ഓരോ സമയത്തുണ്ടായിട്ടുണ്ട് അങ്ങനെ പറയാങ്കിൽ തേങ്ങ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാമാണ് കണ്ണൂർ ജില്ലയില് കൂടുതലായിട്ട് ഉണ്ടായി വരുന്ന വിളയെന്ന് പറയുന്നത്